നമ്മൾ മത്സ്യങ്ങളെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കാറുള്ളതും കണ്ടുവരുന്നതായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വല ഉപയോഗിക്കാറുണ്ട് ചൂണ്ട ഉപയോഗിക്കാറുണ്ട് പിന്നെ ചമ്മൾ ചില ചില ആൾക്കാർ കാണാൻ പിടിക്കുന്ന കാണാൻ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഓ ഓട്ടയിട്ട് അതിനകത്ത് മീനിന് ഇഷ്ടമുള്ള ഫുഡ് ഇട്ടിട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് പിന്നെ അതുപോലെ പലതരത്തിലുള്ള നമ്മൾ മീൻ മീൻ പിടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അപ്പം അതുപോലെ തന്നെ പിന്നെ മീൻ പിടിക്കുന്ന ഒരു രീതി എന്ന് വേറെ പറയുന്നത് ഇപ്പം എന്നാ പറയുന്നത് മീൻ പിടിക്കുന്നത് വേറെ രീതി ചൂണ്ടയിട്ട് പിടിക്കും പിന്നെ നമ്മൾ നമ്മൾ ഈ ബോട്ടുകൾ രണ്ട് മൂന്ന് എണ്ണം ഇട്ട് വെച്ചിട്ട് അപ്പറെ ഇപ്പ്ര സൈഡ് വലിയ വലയിട്ട് അടീ കൂടെ മുക്കിപ്പൊക്കുന്ന രീതികളും നമ്മൾ കടലിലൂടെ കാണാറുണ്ട് കാരണം ഈ ബോട്ട് നമ്മൾ മീൻ പിടിക്കുന്ന രീതി എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പല തരത്തിൽ ഓരോ ആൾക്കാർ മീൻ പിടിക്കും ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാന്ന് പറയുന്നത് ഒരു ഇപ്പം എന്ന പറയുന്നത് ഇപ്പം നമ്മൾ ഒക്കെ മീൻ പിടിക്കുന്ന ആണേലും ചെറിയ ചെറിയ ചൂണ്ട ഉപയോഗിച്ച് പിന്നെ വീശുവലയൊക്കെ ഉപയോഗിച്ച് പിന്നെ നമ്മൾ ഈ ആറ് ആറിൻ്റെ സ ആറിൻ്റെ വക്കത്ത് ഒക്കെയാണ് രണ്ട് സൈഡിൽ വല മുക്കി വെക്കും എന്നിട്ട് ഈ വലയുടെ ഇടക്ക് ഈ സംഭവം ഒടക്കും മീൻ ഉടക്കും ആ സമയം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വേറൊരു രീതി നമുക്ക് മീൻ പിടിക്കാം മീൻ ആ വല ഉടക്കി നിൽക്കും നമ്മൾ വീശുവല അല്ല ഉദ്ദേശിച്ചത് മറ്റ് തരത്തിൽ അപ്പം ഇ കുറെ തരത്തിൽ നമുക്ക് ഇതുപോലത്തെ മീനുകളെ പിടിക്കാനുള്ള അവസരം നമുക്ക് ഇതിലൂടെ തന്നെ കിട്ടും കാരണം ഇപ്പന്ന പറയുന്ന ഇപ്പം മീൻ പിടിക്കാൻ ഒക്കെ പല പല രീതികളും കാര്യങ്ങൾ എല്ലാം ഉണ്ട് കാരണം മീൻ പിടിക്കുന്ന രീതി ഞാൻ എ മനസ്സിലാക്കിയത് മീൻ പിടിക്കാൻ നമുക്ക് നമുക്ക് പറ്റുന്നേതാനും കുറച്ച് കുറച്ച് രീതിയുണ്ട് നമ്മൾ ചിലപ്പം ഈ മുട്ടായി പാത്രത്തിൽ ഒരു പത്ത് മേളിൽ നമ്മൾ തുണി ചുറ്റിയിട്ട് ഒരു ഓട്ടയിട്ട് അതിനകത്ത് ചോറും എല്ലാം മീനിന് ഇഷ്ടമുള്ള വെച്ചിട്ട് അങ്ങനെ പിടിക്കുന്ന രീതികളും നമ്മൾ കുറെ തരത്തിൽ കുട്ടികൾ മീൻ പിടിക്കുന്ന കാണാറുണ്ട് കാരണം അങ്ങനെ പിടിക്കുവാണെങ്കിൽ മീൻ പിടിക്കുന്നത് ആണേൽ നമുക്ക് കുറച്ചൂടെ എളുപ്പമാണ് പിന്നെ ഈ വലിയ വലിയ മീൻ പിടിക്കുമ്പോഴാണ് നമുക്ക് ചൂണ്ട വീശുവല എ ഒക്കെ നമ്മൾ ബോട്ടിലൊക്കെ പോയി വല വീശി മീൻ പിടിക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് പിന്നെ എന്നാ നമ്മൾ പിന്നെ ഇറങ്ങി മീൻ പിടിക്കുന്നതിനെ കണ്ടിട്ടുണ്ട് അതായത് വലിയ ചെറിയ ചെറിയ സ്ഥലത്ത് വെള്ളത്തിന് വല്ല ആഴം ഇല്ലാത്ത സ്ഥലത്ത് ഈ വെള്ളം വറ്റാറായ സ്ഥലത്ത് ഒക്കെ അവർ ഇങ്ങനെ തുണി വെച്ച് സാരി വെച്ച് പിടിക്കുന്ന നമ്മൾ ഓരോരോ അവസ്ഥകൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് മീനുകളെ പിടിക്കാൻ കഴിയും എല്ലാവും നമ്മൾ ഒക്കെ എല്ലാവരും കണ്ട് കാണത്തില്ല അതായത് ഓരോ തരത്തിലും മീൻ പിടിക്കാൻ പറ്റുന്ന രീതികളൊക്കെ പക്ഷേ എന്നാലും അങ്ങനെ പലതരത്തിൽ നമുക്ക് മീൻ പിടിക്കാൻ കഴിയുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കുന്ന രീതി എങ്ങനേന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവും ഭയങ്കര എളുപ്പമാണ് മീൻ പിടിക്കുന്ന രീതികൾ അതായത് കുറെ കുറെ വേറെ പല ഈ ചൂണ്ടയിലാണേലും പല ടൈപ്പ് ചൂണ്ടയുണ്ട് അതായത് നമ്മുടെ ഈ മെക്കാനിക്കൽ ടൈപ്പ് നമുക്ക് ഇങ്ങനെ കറക്കുമ്പോൾ ചൂണ്ട വലിഞ്ഞ് വരുന്ന പോലത്തണ്ട് പിന്നെ നമ്മൾ വീട്ടിലെ കൊണ്ടാക്കാന്ന് പറഞ്ഞ സാധാരണ ഒരു കമ്പി കെട്ടി വെക്കുന്നതാണ് പക്ഷേ അതല്ലാതെ നമുക്ക് കടകളിൽ കിട്ടതെ കിട്ടുന്ന നല്ല ചൂണ്ടകളുണ്ട് അതായത് ഇതിങ്ങനെ കറക്കുമ്പോൾ ചൂണ്ട വലിഞ്ഞ് വരും നമുക്ക് അങ്ങനെ മീൻ പിടിക്കാൻ കുറച്ചും കൂടെ നല്ലത് ആണ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ കമ്പ് നല്ല ടൈറ്റാണ് അപ്പം അങ്ങനെ കുറെ വേറെ ഗുണങ്ങളും ഉണ്ട് ഇതിനകത്ത് ഏ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചൂണ്ട ചൂണ്ടക്കെ വച്ച് ഉപയോഗിച്ച് നോക്കണം